താങ്കൾ ജീവിതത്തിൽ ചെയ്താൽ ആഗ്രഹിക്കുന്ന കുറച്ചു കാര്യങ്ങളെ പറ്റി പറയുക ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ചു കാര്യങ്ങളെപ്പറ്റി പറയുവാണെങ്കില് ഒന്നെന്ന് പറയുന്നത് എനിക്ക് എൻറെ പപ്പയും അമ്മയുമാണ് എൻറെ ജീവിതത്തിലേറ്റവും വലുത് അപ്പോള് അവരെ ഞാൻ എൻറെ ജീവിതത്തില് ഏറ്റവും വില കൽപ്പിക്കുന്നത് അവരെ തന്നെയാണ് അപ്പോള് അവർക്ക് ഏറ്റവും കൂടുതല് സന്തോഷം കൊടുക്കുക അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക അതുപോലെ തന്നെ എനിക്ക് പഠിച്ച് നല്ലൊരു ജോലി കണ്ടെത്താനും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊടുക്കാനും അവരെ നല്ല രീതിയിൽ നോക്കാനുമാണ് എൻറെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോ എൻറെ പപ്പക്കും അമ്മക്കും ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് ഞാൻ ഒരു നല്ല രീതിയില് ഇരിക്കണം എന്നതാണ് അതുപോലെതന്നെ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻറെ പപ്പ എന്നെ ഒരുപാട് സ്ഥലത്ത് കറങ്ങാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തെന്നെ കൊണ്ടുപോവുമായിരുന്നു അപ്പോള് എനിക്ക് അങ്ങനെയുള്ള യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെതന്നെ എനിക്ക് ഒരു നല്ല ഒരു ജോലി കിട്ടി നല്ല ഒരു ശമ്പളമൊക്കെ കയ്യില് കിട്ടിയിട്ട് അവരെയും ഇതേപോലെ പല സ്ഥലത്തും കറങ്ങാനും കാണാനുമൊക്കെ കൊണ്ടുപോകണം എന്നാണ് എൻറെ ഒരു ആഗ്രഹമായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോള് പലപല രാജ്യങ്ങളിലും പലപല പുതിയ കാര്യങ്ങളൊക്കെ അവര് എൻറെ പപ്പയെങ്ങനാണോ എനിക്ക് കൊച്ചിലെ കാണിച്ചുതന്നത് അതുപോലെതന്നെയാണ് അവർക്കും തിരിച്ച് എനിക്ക് അതേപോലെ കാണിച്ചു കൊടുക്കണമെന്നാണ് എൻറെ ആഗ്രഹം അതുപോലെതന്നെ എൻറെ രണ്ടാമത്തെ വലിയൊരാഗ്രഹമെന്ന് പറയുന്നത് എനിക്ക് സൗത്ത് കൊറിയയില് പോകണമെന്നാണ് അതായത് നമ്മള് സൗത്ത് കൊറിയൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല തരത്തിലുള്ള ഗായക സംഘങ്ങളുള്ള നാട്ടായ സൗത്ത് കൊറിയ തന്നെയാണ് അതില് എനിക്ക് ഏറ്റവും കാണണമെന്ന് എനിക്ക് ഏറ്റവും ആഗ്രഹം ഉള്ളത് ബി ടി എസ് എന്ന് പറയുന്ന ഒരു ഗായകസംഘം ഉണ്ടവിടെ അതില് ഏഴ് പേരാണ് ഏഴ് അംഗങ്ങളാണുള്ളത് അതില് അവരെ എന്നെ ഏറ്റവും ഞാൻ ഏറ്റവും കൂടുതൽ കേള്ക്കുന്ന അവരുടെ പാട്ടുകളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് അവരെ നേരിട്ട് കാണണമെന്നും അവരുടെ കയ്യില്നിന്ന് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അവരുടെ ഞാൻ പറഞ്ഞല്ലോ അംഗങ്ങളായി ഏഴ് പേരാണുള്ളത് അവരുടെ കൂടെ ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ട് അപ്പോള് അതിനുവേണ്ടിയിട്ട് എനിക്ക് സൗത്ത് കൊറിയില് പോകണമെന്നും അവരെ നേരിട്ട് കാണണമെന്നും അവരുടെ സംഗീത പരിപാടിയിൽ ഒരു ദിവസം മുഴുവൻ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം അവര് മൊത്തം ഏഴുപേരുണ്ടെന്ന് നേരത്തെ പറഞ്ഞാര്ന്നു അതിലൊന്നാമനായ കിം ലം ചോ രണ്ട് കിം സോക് ചിൻ മൂന്ന് കിം നം ചുൻ കിം കിം തേയാങ്ങുണ്ട് പാചിമിനുണ്ട് ജംഗ് ഹോ സോക്കുണ്ട് ഇയോൻ ജംഗുക്കുണ്ട് ഇതൊക്കെയാണ് അവരുടെ നാമം അവരുടെ പേര് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പേരുകളാണ് ഇവരുടെ പേരൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു പഠിച്ചിരുന്ന പേരുകളാണ് അപ്പോള് അവരെയൊക്കെ കാണണമെന്നാണ് എൻറെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആഗ്രഹമായിട്ട് എനിക്ക് പറയാനുള്ളത് അതുപോലെതന്നെ അല്ലാതെ തന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട് അതൊന്നും അങ്ങനെ ഭയങ്കര പ്രധാനമായിട്ട് അങ്ങനെ പറയാനില്ല എന്നാലും പ്രധാനമായി ഈ രണ്ട് ആഗ്രഹങ്ങളാണ് നിലവിലെനിക്ക് പറയാനുള്ളത്